കൃഷി ചെയ്യുന്നത് വളരെ പുരാതനമായ കൈമാറി വരുന്ന അറിവിലൂടെ ആണ് ഒരു കൃഷി ചെയ്യുമ്പോൾ കർഷകന് ആ കൃഷിയെക്കുറിച്ച് പൂർണ്ണ അറിവ് ലഭിക്കുന്നതായിരിക്കും അത് തലമുറകളായി കൈമാറി വരുന്ന അറിവും ഇപ്പോൾ സർക്കാർ കൃഷിഭവനിലൂടെ നൽകുന്ന മറ്റു വിവരങ്ങളും കൂട്ടിയിണക്കിയാണ് കൃഷി നടക്കുന്നത് എപ്പോൾ നടണം എങ്ങനെ നടണം എന്നെല്ലാം കർഷകന് വളരെ വ്യക്തമായിട്ടറിയാം അത് പ്രധാനമായും തീരുമാനിക്കപ്പെടുന്നത് വെള്ളത്തിൻ്റെ ലഭ്യതയും നടുന്ന വിത്തിൻ്റെ പ്രത്യേകതകളും വെച്ചാണ് വെള്ളം ലഭ്യമായാലേ കർഷകന് കൃഷി നട്ട് അത് നേരെ പരിപാലിക്കാൻ പറ്റുകയുളളൂ അത് കാരണം മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷി ആണെങ്കിൽ വ്യക്തമായും നല്ല ശക്തമായ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ കർഷകന് അത് നടാനും മറ്റ് കാര്യങ്ങൾക്കും പറ്റുള്ളൂ അല്ല മറ്റു കിണറുകളോ അല്ലെങ്കിൽ കനാലുകളോ ഉപയോഗിച്ച് വെള്ളം നനയ്ക്കാൻ പറ്റുന്ന കൃഷി ത്തോട്ടമാണെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി കർഷകന് നടാവുന്നതാണ് എങ്ങനെ ആണെങ്കിലും വെള്ളത്തിൻ്റെ ലഭ്യതയും മാത്രമല്ല കാലാവസ്ഥ അനുകൂലമാകുമ്പോഴും ആണ് കർഷകൻ നടുന്നത് കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് കൃഷിയ്ക്ക് ചില കൃഷിയിൽ വളരെ പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതും ചില മിക്ക കാലാവസ്ഥകളിലും ചെയ്യാൻ പറ്റുന്നതുമാണ് അതുകൊണ്ടു ഏതു കൃഷി രീതി ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി സമയക്രമത്തിൽ കൃഷി ആരംഭിക്കുന്നതാണ്